ഇന്ത്യയിൽ പല ഭാഗത്തും പല നാട്ടിലും പലതരം ഭാഷകളാണ് ഉള്ളത് ഇപ്പോഴും ഇന്ത്യയിലെ ഭാഷകൾ എണ്ണി തിട്ടപ്പെടാതെ ഇരിക്കുകയാണ് നമ്മുടെ മാതൃഭാഷ ഹിന്ദിയാണെങ്കിലും ഓരോ ഭാഗത്തുകാരും ഓരോ സ്റ്റേറ്റുകാരും ചൂസ് ചെയ്യുന്നത് പലതരം ലാംഗ്വേജ് ആണ് കേരളത്തിലെ മലയാള ഭാഷ ഇന്ത്യയിലെ മറ്റു ഭാഷകളുമായി വളരെ അധികം ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്കൃതം ഹിന്ദി മലയാളം ഇതൊക്കെ ഇത് മൂന്ന് ഭാഷകളുമായി മലയാളത്തിന് വളരെ അധികം ബന്ധമുള്ളതായിട്ട് പണ്ടത്തെ ആൾക്കാർ പറയുന്നുണ്ട്